ഹലോ ഇത് ന്യൂ റസ്റ്റോറന്റ് അല്ലേ ആ ഞാൻ ബത്തേരിയിൽ നിന്ന് വിളിക്കുവായിരുന്നേ കുറച്ചു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവിടുത്തെ ഐറ്റംസ് ഒന്ന് പറഞ്ഞു തരുമോ ഓക്കേ ഓക്കേ ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ നല്ല വിശപ്പുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടി മൂന്ന് ബിരിയാണിയും രണ്ടു മന്തിയും എടുത്തോളു ഹോം ഡെലിവറി അവൈലബിൾ അല്ലേ അപ്പോൾ ഇത് എപ്പോഴത്തേക്കു എത്തുമായിരിക്കും ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഇട്ടുതരാം ആ ബത്തേരി അടുത്തു തന്നെയാണ് ആ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലേ അപ്പോഴത്തേക്കും എത്തുമല്ലേ ഓക്കെ അപ്പോൾ എത്രയാകും ഇതിന് ഇത്ര ഐറ്റംസിനു എത്രയാകുമായിരിക്കും ഓ നൈൻ ഹൺഡ്രഡ് ഒക്കെ ഉണ്ടോ അതിനുള്ളതൊന്നും ഇല്ലല്ലോ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരുവാണെങ്കിൽ

അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തേക്കാം ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി ഞാൻ അറിയിക്കാം